ഹലോ ഹലോ ആ എങ്ങനത്തെ മോഡൽ ആയിരുന്നു നോക്കുന്നത് ഇപ്പോൾ നമുക്ക് റോഡിയോ ഗിയറിൻ്റെ വരുന്നുണ്ട് നമ്മളെ ഇപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് റേഞ്ച് വരുന്നത് ആണ് ആണ് ഏറ്റവും ഇത് ആയിട്ട് ഇരിക്കുന്നത് അപ്പം ആ റേറ്റ് ഇതിൻ്റെ റേറ്റ് ആണ് പറഞ്ഞത് ആ സാധാരണയിൽ നമുക്ക് ഒരു ഏഴ് കളർ ലഭ്യമാണ് ആ ഇപ്പോൾ ഈ വലിയ ഒരു ലാഗ് വരത്തില്ല നമുക്ക് പൈസ അടച്ച് നമുക്ക് ആ ഒരു രണ്ട് ദിവസത്തിന് ഉള്ളിൽ നമുക്ക് കിട്ടുന്ന രീതിയിൽ ആ ആണ് അത് ഉണ്ടായിരുന്നത് ആ നമുക്ക് ഏതായാലും ഇവിടെ വരേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ വന്ന് കൊണ്ടുപോവുന്നത് ആയിരിക്കും നല്ലത് ആ അത് അങ്ങനെ ആണെങ്കിൽ നമുക്ക് അങ്ങ് ഡെലിവറി ആയിട്ട് ഉണ്ട് പക്ഷെ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു അഡീഷണൽ ചാർജ് നമുക്ക് ഡെലിവറിക്ക് വരുന്നുണ്ട് ആ ഡെലിവറി ചാർജ് ആയിട്ട് നമുക്ക് ഒരു ചെറിയ ഒരു എമൗണ്ട് വരുന്നുണ്ട് കാറിന് നമുക്ക് ഇപ്പം പ്രിഫേർഡ് ആയിട്ട് ഒരു ത്രീ ഇയർ മൊത്തം ഫുൾ സെറ്റ് വാറണ്ടി ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ എക്സ്റ്റെൻഡ് ചെയ്യണെങ്കിൽ നമുക്ക് അത് എക്സ്ട്രാ ഒരു ടു തൗസൻഡ് റുപ്പീസിന് നമുക്ക് എക്സ്ട്രാ ടു ഇയർ വാറണ്ടിയും കൂടെ ലഭ്യം ആക്കുന്നുണ്ട് അത് നമുക്ക് റീപ്ലേസ്മെൻറ്റ് അല്ല നമുക്ക് അത് നമ്മൾ അത് സർവീസ് ചെയ്ത് തന്നെ തരുന്ന ഒരു ഇത് ആണ് ആ അത്രേ ഉള്ളൂ അത് റീപ്ലേസ്മെൻറ്റ് ആയിട്ട് ഇല്ല ആ പറഞ്ഞാൽ മതി ഇപ്പോൾ നമുക്ക് അല്ലെങ്കിൽ വരുമ്പോൾ പറഞ്ഞാൽ മതി ആ ശരി ഓക്കേ ഓക്കേ ശരി